ആ പനിയാണോ ഓക്കേ

ചുമയുണ്ടല്ലേ വേറെ വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മേല് വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ പിന്നെ തൊണ്ട വേദന അങ്ങനെ എന്തെങ്കിലും ആ ഓക്കേ എന്തെങ്കിലും മഴ നനയുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ മഴ ഒന്നും നനഞ്ഞിട്ടില്ല അല്ലേ

ഗുളിക എന്തെങ്കിലും കഴിച്ചിരുന്നോ പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് നോക്കിയിരുന്നോ കുടിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും കുറവില്ല ഗുളിക എത്ര എണ്ണം കഴിച്ചിരുന്നു രണ്ട് എണ്ണം കഴിച്ചല്ലേ നമ്മൾ പാരസെറ്റമോളിൻ്റെ ഇത് കിട്ടണമെങ്കിൽ മൂന്ന് നേരം കഴിക്കണം എന്നാണ് അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഓരോന്ന് കഴിച്ചിട്ട് ഒരു മൂന്ന് നേരം കഴിക്കുക വേണ്ടി വരില്ല പാരസെറ്റമോള് മൂന്ന് എണ്ണം കഴിച്ചിട്ട് കുറവ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റൽ വരെ വരണം നമ്മൾക്ക് ഒന്ന് ബ്ലഡും ടെസ്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ കുറയുന്നുണ്ടോ ഒന്ന് നോക്കിയിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് വന്നാൽ മതി എന്തെങ്കിലും ബുക്ക് ചെയ്ത് വയ്ക്കുന്നതെന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കഴിച്ച് നോക്കിയിട്ട് നാളെ ബുക്ക് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ കുറവ് ഇല്ലെങ്കിൽ കാണിക്കാം ഓക്കേ പിന്നെ വേറെ ബുദ്ധിമുട്ടോ അങ്ങനെ വേറെ ആർക്കെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അവർക്കും കുറവൊന്നും ഇല്ല

ആ ഓക്കേ ഓക്കേ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തും ആർക്കും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും അല്ലേ ആ ആ ആ ഓക്കേ ഓക്കേ എന്തായാലും നോക്ക് പാരസെറ്റമോള് കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റൽ വരെ വന്നാൽ മതി